ബയോഗ്യാസ് പ്ലാൻറ്റ്കൾ കണ്ടിട്ടുണ്ട് അത് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ആ പ്ലാൻറ്റ്ന്ന് പറയുമ്പോൾ മറ്റ് ഗ്യാസ്നെ അപേക്ഷിച്ച് നമുക്ക് ചിലവ് വളരെ കുറവാണ് അത് നമുക്ക് വേസ്റ്റിൽ നിന്നും അത്പോലെ കാർഷിക മേഖലയിൽ പശുക്കളെ ഒക്കെ വളർത്തുന്നവർ അതിൻ്റെ ചാണകം കലക്കി ഒഴിച്ച് അത് കുറച്ച് ദിവസം പുളിപ്പിച്ച് അത് ഗ്യാസായി വരുന്ന ഒരു പ്രക്രിയ പ്രക്രിയ ആണത് അത്കൊണ്ട് നമുക്ക് മറ്റേ ഗ്യാസ് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ വാങ്ങുന്ന

ഒരു നിശ്ചിത തുക മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ആജീവനാന്ത കാലം അതീന്നൊരു വരുമാനം പോലെ ഗ്യാസ് ലഭിച്ച് കൊണ്ടിരിക്കും പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഗ്യാസാണെങ്കിൽ നമ്മൾ മാസാമ്മാസത് സിലണ്ട്റ് ഫില്ല് ചെയ്യണം നമ്മുടെ സർക്കാരിൻ്റെ നിരക്ക് അനുസരിച്ച് അതിൻ്റെ തുക കൂടി കുറഞ്ഞും ഒക്കെയിരിക്കും ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു തവണ നമ്മൾ ഈ മുടക്കും എന്നല്ലാതെ പിന്നീട് അതിന് വേണ്ടിയിട്ട് ഒരു അമിതമായിട്ടുള്ള ചിലവ് വരുന്നില്ല പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേസ്റ്റ്കൾ വേസ്റ്റ് മാനേജ്മെൻറ്റിന് അതൊരുപാട് ഉപകാരപ്പെടും വേസ്റ്റ് കൊണ്ട് പോയി അതിലേമിതിലേം വലിച്ചറിയാതെ അതീ ബയോഗ്യാസ് പ്ലാൻറ്റിൽ നിക്ഷേപിക്കുക ആണെങ്കിൽ അത് നമുക്ക് തിരിച്ച് ഗ്യാസായിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ പാചക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിൽ നിന്ന് വേർതിരിഞ്ഞ് വരുന്ന സ്ലാറീന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് അതിൻ്റെ വേസ്റ്റായിട്ട് വരുന്ന വെള്ളം അത് നമുക്ക് കാർഷിക കൃഷികൾക്ക് കൃഷി ആവശ്യങ്ങൾക്ക് വളരെ അധികം ഉപകാരം ഉപകാരപ്പെടുന്ന ഒരു ലായിനിയാണ് അത് നേർപ്പിച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് അത് ഏത് പച്ചക്കറി കൃഷിക്കോ അല്ലെങ്കിൽ പറമ്പി വളരുന്ന കൊടിയ അല്ലേ ഏലം അങ്ങനെയുള്ള എല്ലാ ജൈവ കൃഷികൾക്കും കാർഷിക വിളകൾക്കും ഇത് വളരെ ഭയങ്കരമായിട്ട് വളർച്ച നൽകുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭവനങ്ങളിൽ ബയോഗ്യാസ് പ്ലാൻറ്റൊണ്ടായിരുന്നു അത്കൊണ്ട് അതിന്റെ ഗുണത്തെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ സാധിക്കും പിന്നെ അപകടമില്ല നമുക്ക് ഒരു തരത്തിലും ഭയപ്പെടേണ്ടതായി ആവശ്യമില്ല കാരണം നമ്മൾ എവിടെപ്പോയാലും ഇനി അത് പൊട്ടിത്തെറിക്കൂന്നോ അല്ലെങ്കിൽ വീടിന് തീ പിടിക്കൂന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അതങ്ങനെ പൊട്ടിത്തെറിക്കില എന്ന് വെച്ചാൽ ലീക്കാകേല ഇനി അഥവാ നമ്മൾ അതൊന്ന് ഓഫ് ചെയ്യാനായിട്ട് മറന്നാൽ പോലും നമുക്ക് അത് കൊണ്ട് വേറെ ദോഷം ഒന്നും നമുക്ക് സംഭവിക്കുക ഇല്ല അത്പോലെ കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിപ്പോലും ഗ്യാസ് കൈകാര്യം ചെയ്യാൻ പറ്റും അതിന് ഒരപകടം വരുമോന്ന് നമുക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല മറ്റേ ഗ്യാസേൽ യൂസ്ള്ള പോലെ നമ്മൾക്ക് പേടിക്കേണ്ടതായൊരു ആവശ്യം വരുന്നില്ല വയസ്സായവർക്കും ആർക്ക് വേണെങ്കിലും അതുപയോഗിക്കാൻ സാധിക്കും പിന്നതിന് സർക്കാർ സംവിധാനത്തിലതിന് സബ്സിഡി നൽകുന്നുണ്ട് അപ്പം അങ്ങനെ അവർ സർക്കാരിൻ്റെ ഒരു സഹായം നമുക്ക് കിട്ടുന്നുണ്ട് വളരെ പ്രയോജനകരാണ് അയെന്നാന്ന് ചോദിച്ചാൽ വേസ്റ്റ് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറീടേം അത്പോലെ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ കൊണ്ടോയി പറമ്പിക്കൂടെ വിതറി ആ എലിയും മറ്റ് ജീവികളും വന്ന് ശുദ്രജീവികളൊക്കെ വന്നിട്ട് അവടം വൃത്തികേടാക്കുന്നതിൽ നിന്ന് എത്രയോ നല്ലതാണ് നമ്മുടെ പരിസരം ശുചിയാക്കും അത്പോലെ നമുക്ക് അതീന്ന് ഗ്യാസ് ലഭിക്കും നമുക്ക് സാമ്പത്തികമായിട്ട് ലാഭോണ്ടാവും അത്കൊണ്ട് എല്ലാ വീടുകളിലും ബയോഗ്യാസ് പ്ലാൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഉള്ളൊരു നേട്ടം ആദ്യത്തെയൊരു മുതൽ മുടക്കല്ലാതെ പിന്നീട് നമ്മൾക്ക് അതിന് വേണ്ടീട്ട് കാശ് മുടക്കേണ്ടതായ ഒരാവശ്യവും വരുന്നില്ല സർക്കാരതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കിന്നുണ്ട് കൃഷിഭവൻ വഴി നമുക്ക് അതിന് വേണ്ട സബ്സിഡിം അത് പണിയാനാവശ്യമായ ആൾക്കാരെ നമുക്ക് വിട്ട്തരേം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈയൊരു സാഹചര്യത്തിൽ വിറകിനും ഗ്യാസിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കിന്നയീയൊരു സാഹചര്യത്തിനിയാ അത് മുന്നോട്ട് പോകും തോറും കൂടി കൂടി വരുന്നൊരു സാഹചര്യം മുന്നോട്ട് വരും തോറും ഒണ്ടാക്ന്നത് അപ്പതേ സംബന്ധിച്ച് നമുക്ക് ബയോഗ്യാസ് പ്ലാൻറ്റ് പണിമാണെങ്കിൽ ആജീവനാന്ത കാലത്തെന്നൊരു ഉറപ്പായിട്ട് നമുക്ക് ഗ്യാസ് കിട്ടാനൊരു മാർഗ്ഗവാണ് കരിയില്ല പുകയില്ല മണവില്ല അമിതവായിട്ടുള്ള ചൂടില്ല അതായത് മറ്റേ ഗ്യാസിനെപ്പോലെ അമിതവായിട്ടുള്ള ചൂടില്ല എല്ലാ ആവശ്യത്തിനുള്ള ഗ്യാസൊരു പ്ലാൻറ്റൊണ്ടെങ്കിൽ ആ ഒരു വീട്ടീന്ന് ആ വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിട്ടുള്ള എല്ലാം ആ ഒരു ബയോഗ്യാസ് പ്ലാൻറ്റിന്ന് നമുക്ക് ലഭിക്കും അതോണ്ട് എല്ലാവരും ബയോഗ്യാസ് പ്ലാൻറ്റ് പണിയുക അതിൻ്റെ നേട്ടം ആസ്വദിക്കുക